വിവിധ മതങ്ങളിൽ നിന്നുള്ളവർ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഉത്സവങ്ങളുടെ നാടാണ് ഇന്ത്യ ഇന്ത്യയിലാഘോഷിക്കുന്ന വൈവിധ്യമാർന്ന ഉത്സവങ്ങൾ അതിൻറ്റെ സമ്പന്നരായ സംസ്കാരത്തിൻറ്റേയും സം പാരമ്പര്യത്തിൻറ്റേയും യഥാർത്ഥ പ്രകടനമാണ് നിരവധി ഇന്ത്യൻ ഉത്സവങ്ങളും ആഘോഷങ്ങളുമുണ്ട് അവയിലേറ്റവും ആവേശകരമായത് ചുവടെ പറയുന്നതാണ് വർഷം മുഴുവനും ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസം സമയമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ കഴിയുന്ന സമയം എല്ലാ മതങ്ങളും സമൂഹങ്ങളും അവരുടെ സംസ്കാരം ആഘോഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ